എൻ്റെ കുടുംബവും കുട്ടികളും അവധിക്കാലത്ത് നമ്മൾ പാലക്കാട് ജില്ലയിലുള്ള മലമ്പുഴ ഡാമിൽ കാണാൻ പോവാറുണ്ട് അവിടെ നല്ല രീതിയിലുള്ള ഡാം തുറന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ വ്യൂവും അതുപോലെ തന്നെ അവിടുത്തെ പുഴയുടെ വ്യൂവും എല്ലാം ഭയങ്കര രസകരവും സന്തോഷമുള്ളതുമാണ് അവിടെ പോകുന്നതിൽ കുട്ടികൾക്കും കുടുംബത്തിനും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് അവിടെ അതുപോലെ തന്നെ അവിടെയുള്ള പ്രദേശത്തുള്ള ഭക്ഷണ വിഭവങ്ങളും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ടു തന്നെയാണ് ഇതെല്ലാം തിരഞ്ഞെടുക്കാനുള്ള കാരണവും അവിടെ പോയാൽ നമ്മള് വളരെ സമയം സന്തോഷിച്ചിരിക്കുകയും കാറ്റുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ നേച്ചർ അതുപോലെ തന്നെ പ്രകൃതി ആസ്വദിച്ചിരിക്കുകയും ചെയ്യാറുണ്ട്